ഞങ്ങളുടെ പ്രദേശത്ത് ബിസിനസ് നടത്താനുള്ള പ്രകൃതി വിഭവങ്ങളുണ്ട് എന്തൊക്കെ എന്ന് ചോദിക്കുകയാണെങ്കിൽ നാളികേരം വാഴ ചേന ചേമ്പ് കപ്പ പിന്നെ നെൽകൃഷി തെങ്ങ് തെങ്ങിനെ എടുക്കുകയാണെങ്കിൽ തെങ്ങ് കൃഷി ചെയ്തതിനു ശേഷം അതിന് വേണ്ട വിധത്തിൽ വളങ്ങൾ ചേർക്കുകയും അതിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ഏതെങ്കിലും തെങ്ങിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും കീട കീടങ്ങളുടെ ശല്യമുണ്ടാകുകയോ ചെയ്താൽ അതിനുവേണ്ട പ്രതിവിധിയും ഞങ്ങൾ എടുക്കുകയും ചെയ്യുന്നുണ്ട് തെങ്ങിൻ്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിൻറേതായ എല്ലാ രീതിയിലും ഞങ്ങൾ ഒത്തിരി ശ്രദ്ധാലുവാണ് കൂടാതെ ഈ തെങ്ങിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ എടുക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഹൗസിന് എടുക്കുന്നതോടൊപ്പം ബാക്കി വരുന്നത് ആവശ്യത്തിൽ അധികം വരുന്നത് ഞങ്ങൾ പുറത്ത് വിൽക്കുകയും എന്നുവെച്ചാൽ ചന്തകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലേലം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്ക് പാട്ടം കൊടുക്കുകയോ ചെയ്യുന്നുണ്ട് കൂടാതെ വാഴക്കൃഷി എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മണ്ണിനെ സംബന്ധിച്ച് നല്ല വളക്കൂറുള്ള മണ്ണാണ് കാരണം ഓരോ കാലത്തിനുമനുസരിച്ച് അതിൻറേതായ രീതിക്ക് സീസൺ അനുസരിച്ച് ഞങ്ങൾ നൽ വേണ്ട രീതിയിൽ കമ്പോസ്റ്റ് വളം ചേർക്കുകയും അല്ലാതെ മറ്റ് രീതിയിലുള്ള വളങ്ങളും ചേർക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ മണ്ണിന് നല്ല ഫലഭൂയിഷ്ടമായുള്ള മണ്ണാണ് ഈ മണ്ണിൽ വാഴക്കൃഷി ചെയ്യുമ്പോൾ അതിനോടൊപ്പം ആവശ്യമായ ജലവും കമ്പോസ്റ്റ് വളവും ചേർത്തു കൊടുക്കുന്നുണ്ട് വാഴക്കൃഷിയും അതുപോലെതന്നെയാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായ പഴങ്ങളോ എന്തെങ്കിലും എടുത്തതിന് ശേഷം അധികമുള്ളത് ഞങ്ങൾ കടകളിൽ തൂക്കി കൊടുക്കുകയോ വിൽക്കുകയോ ചെയ്യുകയാണ് പതിവ് പിന്നെ ചേന കാച്ചിൽ ക കപ്പ ഇത് എല്ലാം ഞങ്ങൾ കൃഷി ചെയ്ത് വരുന്നു ഇതും വേണ്ട രീതിയിൽ അത് തക്കത് തക്കതായ രീതിയിൽ കൃഷി ചെയ്യുകയും നല്ല രീതിയിൽ തന്നെ വളങ്ങൾ ചേർക്കുകയും അതിൻ്റെ എല്ലാ രീതിയിലുള്ള വളർച്ചയ്ക്കും വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുക്കുകയും കാലത്തിൻ്റെ രീതിക്കനുസരിച്ച് കൃഷി ചെയ്യുകയും ചെയ്ത് വരുന്നു ഇതും ഞങ്ങൾ കൂടുതലും കൃഷി ചെയ്യുന്നത് കാരണം കൂടുതലായിട്ട് ഞങ്ങൾ പുറത്ത് ച കടകളിൽ കൊടുക്കുകയാണ് ച പതിവ് കൂടാതെ നെൽകൃഷി നെൽക്കൃഷിയും അത് പഴയ രീതിയിലുള്ള കൃഷിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഓരോന്നിൻ്റെയും സീസൺ അനുസരിച്ചാണ് കൃഷി ചെയ്യുന്നത് നെൽകൃഷി സമയത്താണെങ്കിൽ ഞങ്ങൾ ഭൂമി നന്നായിട്ട് വളം ഉഴുതുമറിഞ്ഞ് വളം ചേർത്തതിന് ശേഷം വെള്ളം നണ് നനച്ച് കൃഷി നടും നെൽകൃഷി നടും അതിനുശേഷം അതിൻ്റെ ഓരോ വളർച്ചയും നല്ല രീതിയിൽ തന്നെ നിരീക്ഷിക്കുകയും കീടനാശിനി ഉപയോഗിക്കേണ്ട സമയത്ത് കീടനാശിനികൾ ഉപയോഗിക്കുകയും മറ്റ് പക്ഷികളിൽ നിന്ന് സംരക്ഷിക്കേണ്ട സമയത്ത് കൃഷീനെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു വിളവെടുപ്പിൻ്റെ സമയത്ത് നല്ല രീതിയിൽ വിളവെടുപ്പുകയും വീട്ടിലേക്ക് ആവശ്യമായത് വീട്ടിലേക്ക് എടുക്കുകയും അധികമുള്ളത് മാർക്കറ്റുകളിൽ തൂക്കി കൊടുക്കുയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത് ൻ നെൽകൃഷിയുടെ സമയം കഴിയുമ്പോഴത്തേക്കും പിന്നെ മത്സ്യകൃഷിയുടെ സമയം ആകുമ്പോഴത്തേക്കും മത്സ്യക്കൃഷിയും സെയിം അതേ പാടത്ത് തന്നെ കൃഷി ചെയ്തുവരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഈ കൃഷികളിൽ നിന്നും നല്ലൊരു വരുമാനം സമ്പാദിക്കാൻ സാ സാധിക്കുന്നു ഇത് ഞങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ആയി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു